എനിക്കിപ്പോന്ന് വെച്ചിട്ടുണ്ടേൽ എൻ്റെ സുപ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നൊരു സന്ദർഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം തന്നെയാണ് അപ്പോൾ എൻ്റെ കല്യാണം ഒരു ലവ് മാരേജായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്കൊന്നും താൽപര്യം ഉണ്ടായിരിന്നില്ല കാരണം ഞങ്ങൾ തമ്മിൽ ഒരു രണ്ട് വയസ്സ് വ്യത്യാസമെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത് പിന്നെ മെയിനായിട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാര്യേജ് ആർക്കും വലിയ താൽപര്യം ഉണ്ടാവില്ലലോ പിന്നെ അവരുടെ വീടൊരു കാടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പം അതും കൂടെ അതും കൂടെ ഇതാക്കീട്ട് ആർക്കും താൽപര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കറക്റ്റ് ആ ആ ഒരു ടൈമിൽ ഭർത്താവിന് ഒരു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ ഞാനൊറ്റ മോളേ ഉണ്ടായിരുന്നുളൂ അമ്മക്കും അച്ഛനും വേറാരുമില്ല അപ്പം അവർ എന്തായാലും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവല്ലൊ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കൊടുക്കണം പിന്നെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കണം അങ്ങനൊക്കെ ഉണ്ടാവല്ലോ അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒറ്റൊരു വാശീൻ്റെ ഇതിലാണ് എന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച് വിട്ടത് പിന്നെ ഞാനിപ്പോൾ ആരിൽ നിന്നെക്കെയാണ് ഉപദേശങ്ങൾ ഇതാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ എന്തിണ്ട് എനിക്കെന്ത് കാര്യമുണ്ടെങ്കിലും ഞാനെൻ്റെ ഭർത്താവിനോടാണ് ചോദിക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടാളും പിന്നെ അമ്മേനോട് ചോദിക്കും അമ്മേം ഭർത്താവും പറയുന്നതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോവാ എനിക്കെന്ത് തീരുമാനം എടുക്കണെങ്കിലും ഞാനവരോട് കൂടെ ചോദിക്കും അവരുടെ സമ്മതം സമ്മതം കൂടെ മേടിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോവുക